ഹലോ ആ റെജിമോളേച്ചിയേ ആ ഞാനേ ലിൻസിയായിരുന്നു ഏച്ചി പിന്നെ നമ്മുടെ നമ്മുടെ പറമ്പിലേ നമ്മുടെ ആ വെച്ച് ആ നാല്പത് സെൻ്റ് സ്ഥലത്തൊരു ഇച്ചിരി നമ്മൾക്കൊരു ഇച്ചിരി കപ്പയും ഇച്ചിരി ഏത്ത വാഴയും കുറച്ച് ഇത് ഇതൊക്കെ നടാനായിരുന്നു ഏച്ചി എന്നാൽ അപ്പോഴേ നമുക്കതിൻ്റെ ആ വളങ്ങൾ എന്തൊക്കെയിട്ടൊന്ന് റെഡിയാക്കണം എന്നുള്ള ഒന്ന് പറഞ്ഞിരുന്നു ഏച്ചി ആ ആ ആ ആ ആ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഇട്ടേക്കാം ഓക്കെ ആ ആ ആ ആ ആ ആ ആ ഓക്കെ

ആണല്ലേ ആ ഓഹ് ആ അതുമതിയല്ലേച്ചി ആ ആ ആ നമുക്ക് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ ആ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ ആ അല്ല കമ്പോസ്റ്റിൻ്റെയൊക്കെ ആ നമ്മുടെ നമ്മുടെ കമ്പോസ്റ്റൊക്കെ തന്നെ ഇട്ടാൽ മതിയായിരിക്കുമല്ലേ അതിന് ആ മതി അത് അല്ലേ ഓഹ് ഓക്കെ ഓക്കെ ആ അതിട്ടാൽ മതിയല്ലേ ആ ആ ആ കുറച്ചെ പച്ചക്കറി വിത്തുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ചേച്ചി അപ്പോൾ അതൊക്കെ ഇടാമല്ലോയെന്നു വിചാരിച്ചായിരുന്നു അവിടെ ആ ആ ആ ഓക്കെ ആ ആ അങ്ങനെയാണേ ഇടാൻ വേണ്ടിയായിരുന്നു ഏച്ചി അപ്പോൾ ചേച്ചിക്കാവുമ്പോൾ കുറച്ചറിയാമല്ലോ അത്

ആ ഓക്കെ ആ ആ പിന്നെ വേറെയെന്തുണ്ട് ചേച്ചി അതിനിടയ്ക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ എന്നാ ഉണ്ട് കൃഷി വേറെ കുറച്ച് ചേച്ചി സത്യത്തിൽ ഇഞ്ചിക്ക് പൊക്കം വേണമായിരിക്കും ഏച്ചീ അല്ലെ നല്ലപോലെ പൊക്കം വെക്കണമായിരിക്കുമല്ലേ പൊക്കത്തിൽ ഇഞ്ചി കിട്ടാൻ നമുക്ക് ഇവിടെ ഇഞ്ചി കിട്ടാൻ സാധ്യത ആ ഇടണമല്ലേ ഓഹ് ആണല്ലേ ആണല്ലേ ആ ആ ആ ഓഹ് ശരി ആ ആ ഇച്ചിരി ഇച്ചിരി പച്ചമഞ്ഞളും ആ ഇച്ചിരി പച്ച മഞ്ഞളും ഇച്ചിരി ഇഞ്ചിയും കൂടെയൊക്കെ ഇടാമെന്നു വച്ചായിരുന്നു ആ ആ കുറച്ച് ആ കുറച്ചെ കൃഷി ഭവനിൽ നിന്ന് കുറച്ച് വിത്തെല്ലാം കൂടെ കിട്ടിയിരുന്നു ഏച്ചി അതായിരുന്നു ഇവിടെ ഇടാമെന്നു വിചാരിച്ച് ആ ആ ഓക്കെ ആണല്ലേ ആ ഇതിൻ്റെ കൂടെ വളർത്താമല്ലോ ആ ആ ഓഹ് ആ അത് ഒന്നറിയാൻ വേണ്ടിയായിരുന്നു ചേച്ചി ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ കൃഷിഭവനിലൊക്കെ ഇത്തവണ വിത്തൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു മറ്റേ കശുമാവിൻ്റെ തയ്യൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്ന കേട്ടു കേട്ടോ ചേച്ചിയൊന്ന് അന്വേഷിച്ചേക്കണേ ആ ഒന്ന് അന്വേഷിക്കണം കരമടച്ച രസീതുമൊക്കെ ആയിട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആ ഓക്കെ ഓക്കെ ആ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ ഏച്ചി ആ ആ ആ ശരി ഏച്ചി ശരി